സാങ്കേതിക വിദ്യകൾ കൊണ്ട് വിദ്യാർഥികൾക്കായാലും ഏതൊരു വിഭാഗത്തിലുള്ള ഏതൊരു വ്യക്തിക്കായാലും അത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരു അസൈമെൻ്റ് പ്രൊജെക്റ്റായാലും ഒരു സെമിനാറായാലും അത് നമുക്ക് സാങ്കേതിക വിദ്യ പ്രകാരം നമുക്ക് അതിൽ തന്നെ എന്തൊക്ക വിവരങ്ങളുണ്ടോ ഈ ലോകത്ത് അത് തന്നെ നമുക്ക് അത് വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ് ലോകം നമ്മുടെ വിരൽ തുമ്പിലെന്നൊരു കാര്യം തന്നെ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് സാധിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ അവരെ വിളിച്ച് ഇപ്പോൾ എല്ലാം വെബ്സൈറ്റും ഓൺലൈൻ പേയ്മെൻ്റൊക്കെ ആയത് കാരണം നമ്മൾ ഒരു ലോകം തന്നെ നമ്മളെ വിരൽ തുമ്പിലെന്ന് പറയാം ഒരു സ്ഥലത്തേക്ക് പോകാനാണെങ്കിലും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സാങ്കേതിക വിദ്യ കാരണം പറ്റുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് എന്ന ഒരു കാര്യത്തോട് കൂടി നമ്മുടെ ലോകം തന്നെ മാറുകയാണ് നമ്മുടെ റീസെർച്ച് ആയാലും നമ്മുടെ ബഹിരാകാശത്തിനെ കുറിച്ചായാലും നമ്മളെ ലോകത്തെ കുറിച്ചായാലും ഏതൊരു കാര്യത്തിനും നമുക്ക് നമുക്ക് നമ്മുടെ വിവരങ്ങൾ കൊണ്ട് നമ്മുടെ നോളജ് കൊണ്ടും നമുക്ക് സാങ്കേതിക വിദ്യ വളരെ അധികം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എല്ലാ സാഹചര്യത്തിലും സാങ്കേതിക വിദ്യ വളരെ നല്ലതാണ് ഏതൊരു വ്യക്തിക്കായാലും അത് കൊണ്ട് വളരെ ഉപകരമുണ്ട് അത് ഏതൊരു അവസ്ഥയിലായാലും ഏതൊരു വിഭാഗത്തിലുള്ള കുട്ടിക്കായാലും വിദ്യാർഥികൾക്കായാലും ഏതൊരു മനുഷ്യനായാലും സാങ്കേതിക വിദ്യ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അതിൻ്റെ ദൂശ്യവശങ്ങളും ഉണ്ട് എല്ലാവരും അതിൻ്റെ മുമ്പിൽ തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ ലൈബ്രറിയിൽ പോകുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ നേരെ ഫോണിൽ സെർച്ച് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ഉപകാരമുണ്ട് പക്ഷെ അതിന് അതേ കൂടെ തന്നെ അതിൻ്റെ ദൂശ്യ വശങ്ങളുണ്ട് അത് നമ്മൾ പറയാതിരിക്കരുത് എല്ലാവരും ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയും പിന്നീട് അവർ അവർ ആശ്രയിക്കുന്ന ബുക്കുകളും നോവലുകളുമെല്ലാം അവർ നിർത്തി വയ്ക്കുകയും ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഫോണിലേക്ക് തന്നെ ഒതുങ്ങി കൂടുകയാണ് അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉപകാരങ്ങളും ഉണ്ട് അതിനോടുള്ള അനിഷ്ടങ്ങളുമുണ്ട് അത് നമ്മൾ പറയാതിരിക്കരുത് പക്ഷേ ഒരു ഏതൊരു വ്യക്തിയായാലും അവർക്ക് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയാണ് അതുകൊണ്ട് തന്നെ എഐ ഇൻറ്റലിജൻസ് വച്ചിട്ട് ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒരാൾ എങ്ങനെ ലൈക് വേറെ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എങ്ങനെ മനുഷ്യനായി നമ്മൾ വലുതാകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് അറിയാവുന്നതാണ്